കോഴിക്കോട് ജില്ലയിലെ ആരോഗ്യ സംരക്ഷണം എങ്ങനെ ഉള്ളതാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കോഴിക്കോട് ജില്ലയില് ഇപ്പം മെച്ചപ്പെട്ട രീതിയില് ആരോഗ്യ സംരക്ഷണവും കാര്യങ്ങളൊക്കെ നടന്ന് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഡോക്ടർമാര് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള അപ്പോൾ നമ്മുടെ മെയ്നായിട്ട് നമ്മള് ആരോഗ്യം ഉള്ളവരായിട്ട് ഇതാക്കുവാണെങ്കിലും പക്ഷെ നമ്മുടെ ഈ ആശുപത്രികളില് ഉണ്ടാവുന്ന ഡോക്ടർമാരുടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലെ അപ്പോൾ അതൊന്ന് നമുക്കെ അതായത് ഡോക്ടർമാര് നല്ല രീതിയില് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷെ നമ്മള് മെയ്നായിട്ടും നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടും പരിസരവും നമ്മുടെ വീട് ഇതൊക്കെ ശുചിത്വമായിട്ട് സൂക്ഷിക്കാണമെങ്കില് നമുക്ക് അസുഖങ്ങളൊന്നും വരാണ്ട് നമ്മള് എന്താ പറയുക ഡോക്ടറെടുത്ത് പോകാണ്ട് ആശുപത്രികളിൽ പോകാണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുവാണെങ്കില് കുറച്ചും കൂടെ ബെറ്ററായിരിക്കും കാരണം അസുഖം വരാണ്ട് നോക്കേണ്ടത് നമ്മുടെയൊരു കടമ കടമയാണ് അപ്പോൾ അസുഖം വന്നിട്ട് ചികിൽസിക്കുന്നതിനും നല്ലത് അസുഖം വരുന്നതിന് മുന്നേ നമ്മള് ചികിൽസിക്കുക അതായത് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കില് നല്ല രീതിയിലുള്ള ആരോഗ്യവാനായിട്ടും ആരോഗ്യവതിയായിട്ടും നമുക്ക് വേണമെങ്കിൽ എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ കോഴിക്കോട് തന്നെ ഇഷ്ട്ടം പോലെ ഹോസ്പിറ്റല് കാര്യങ്ങള് ഉണ്ട് കോ കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലുണ്ട് പിന്നെ സർക്കാർ ആശുപത്രി അതായത് നമ്മുടെ മെഡിക്കൽ കോളേജ് തന്നെയുണ്ട് ഇപ്പം കൂടുതലായിട്ടും നിപ്പ വൈറസൊക്കെ നല്ല രീതിയില് കടന്ന് പിടിക്കുന്നൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് നമ്മള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കില് നമുക്ക് അസുഖം പടരാനും നമ്മളെ മരണത്തിലേക്ക് എത്തിക്കാനും എല്ലാം സാധിക് അവർ അതിന് കഴിയും അപ്പോൾ നമ്മള് കുറച്ച് ശിചിത്വവും നമ്മള് പിന്നെ ആൾക്കാരുവായിട്ട് സമ്പർക്കം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നോക്കുവാണെങ്കിൽ വേറെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല